ഇപ്പോൾ നമ്മുടെ എൻ്റെ ഗ്രാമത്തിലൊക്കെ ജലനിർഗ്ഗമന സംവിധാനം ഒരുപാട് നല്ലതാണ് ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ മല മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല കുത്തിയൊലിക്കുന്ന വെള്ളമൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ കിണറുകളിലൊക്കെ അല്ലെങ്കിൽ വയൽ പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകളിലൊക്കെ ഒരുപാട് വെള്ളം കിണറിലേക്ക് ഇറങ്ങി ചെല്ലാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ചെളിവെള്ളം പോലുള്ള വെള്ളമായിരിക്കും നമുക്ക് പിന്നെ കിട്ടുക അപ്പം ആ ഒരു സമയങ്ങളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ഇപ്പം മഴക്കാലങ്ങളിലൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ പടരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ബ്ലീച്ചിങ് പൗഡറുകളും അതുപോലെ ജലം ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ജലത്തിൻ്റെ ഒരു ജലം എത്ര നല്ലതാണ് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ പിന്നെ ഇപ്പോൾ ജലം ഇല്ലാത്ത അല്ലെങ്കിൽ കിണറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജലനിധി പൈപ്പുകളുണ്ട് അപ്പോൾ പൈപ്പുകൾ അതുപോലുള്ള എല്ലാ വീടുകളും ഇപ്പോൾ മാസത്തിൽ ചെറിയൊരു രൂപ മാത്രം ചിലവ് മതി അപ്പോൾ ഒരു പൈപ്പും അതിലൂടെ നമുക്ക് ഒരു നിശ്ചിത സമയങ്ങളിൽ വെള്ളവും വരും അപ്പോൾ നമ്മളത് ടാങ്കുകളിലും അതിലൊക്കെ പിടിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അതുപോലെ വലിയ ടാങ്കുകള് അപ്പോൾ രാവിലെ ചില സ്ഥല ചിലയിടങ്ങളിൽ ജലനിധി പൈപ്പ് ഇല്ലാത്തവർക്ക് വെള്ളം എത്തിക്കാറുണ്ട് ഇപ്പോൾ ടാങ്കുകളിലൊക്കെ ഒഴിച്ച് വെള്ളം സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്